ഒത്തു പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരാളുമായി എനിക്ക് ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ അയാളെക്കുറിച്ച് അയാളോട് ഒന്നും സംസാരിക്കാൻ പോവുകയില്ല അയാളുടെ കാര്യങ്ങൾ അന്വേഷിക്കാറില്ല അയാളെക്കുറിച്ച് ഒന്നും പറയാറുമില്ല അയാൾ അയാളുടെ ജോലി നോക്കും ഞാൻ എൻ്റെ ജോലി നോക്കും കുറേ നാൾ കഴിഞ്ഞപ്പോൾ അയാളുടെ തെറ്റ് അയാൾക്ക് മനസ്സിലാവുകയും അയാൾ എന്നോട് ക്ഷമ പറഞ്ഞ് എൻ്റെ കൂടെ കൂടുകയും ചെയ്തു അതായത് അയാൾ എഴുതിയ ഫയലിൽ കുറച്ച് തെറ്റുകൾ ഉണ്ടായിരുന്നു ആ തെറ്റുകൾ ഞാൻ ആദ്യം അദ്ദേഹത്തോട് പറഞ്ഞുവെങ്കിലും അത് തിരുത്താനോ അത് മാറ്റി എഴുതാനോ അദ്ദേഹം തയ്യാറായില്ല അപ്പോൾ എനിക്ക് ഹെഡ് ഓഫീസിലേക്ക് ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് ഇൻഫർമേഷൻ കൊടുക്കേണ്ടി വന്നു അങ്ങനെയാണ് അയാളും ഞാനും തമ്മിൽ ഒത്തു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ആയത് പിന്നീട് അയാൾക്ക് അയാൾ ചെയ്ത തെറ്റിനെക്കുറിച്ച് മനസ്സിലായി ഹെഡ് ഓഫീസിൽ നിന്നും അയാൾക്ക് താക്കീത് വന്നപ്പോൾ അയാൾ എന്നോട് ദേഷ്യപ്പെടുകയില്ല പകരം മറിച്ച് അയാളുടെ ജോലി പോകാതിരിക്കാൻ ഞാൻ സഹായിച്ചതിന് അയാൾ എന്നോട് നന്ദി പറയുകയും ചെയ്തു